നമ്മുടെ നാട്ടിൽ കുട്ടനാട് പോലെയുള്ള നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ തൊഴിലും കയറ്റുമതിയും ടൂറിസവും ഒക്കെ വളരെ അധികം മുന്നോട്ട് കൊണ്ടുപോവുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മളേറ്റവും അധികം നമ്മളെ സംബന്ധിച്ചെടുത്തോളം ഏറ്റവും അധികം നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നത് നെൽക്കൃഷിയാണ് നെൽക്കൃഷി വഴി നമ്മൾ ഒരുപാട് തരം നെല്ലുകൾ ഇവിടെ കൃഷി ചെയ്യുന്നു അത് നമ്മൾ കയറ്റുമതി ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടൂറിസവും അതേപോലെ തന്നെ വളർത്തിക്കൊണ്ടു വരുന്ന ഒരു ഈ സംഭവം ആണ് ടൂറിസം എന്നു പറയുന്നത് ടൂറിസത്തിൽക്കൂടി നമ്മുടെ ഇവിടെ മെയിനായിട്ടുള്ള ടൂറിസം എന്നു പറയുന്നത് നമുക്ക് ബോട്ടിങ്ങ് ഹൗസ് ബോട്ടിങ്ങുണ്ട് അതുപോലെ തന്നെ പിന്നെ ഓഹ് വള്ളങ്ങളും ചെറിയ ബോട്ടുകളും ഒക്കെ അതിലൊക്കെ കയറാൻ വേണ്ടി ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട് അപ്പം ഗ്രാമ പ്രദേശങ്ങളും നമ്മുടെ കുട്ടനാടിൻ്റെ വെള്ളവും പച്ചപ്പും ഒക്കെ കാണാൻ വേണ്ടി ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ വരാറുണ്ട് അതുപോലെ തന്നെ ഈ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഈ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യുകയെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടൊരു വിനോദം തന്നെയാണ് അവരുടെ ഹൗസ് ബോട്ടുകൾ ഒരുപാട് സ്ഥലത്ത് ഹൗസ് ബോട്ടുകളുണ്ട് അതിൽ നമുക്ക് രാവിലെ തൊട്ട് അത് സ്റ്റേ ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് വീടുപോലെ തന്നെ ഹൗസ് ബോട്ടുകൾ ഒരു വീട്ടിൽ നമ്മളെങ്ങനെ താമസിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഹൗസ് ബോട്ടുകളും അതുപോലെ തന്നെ ഹൗസ് ബോട്ടിൽ പലതരം എൻ്റർടൈൻമെൻ്റുകളും അവർ നടത്താറുണ്ട് കലാകാരന്മാരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് കഥകളി പോലത്തെ ഉള്ള കലാരൂപങ്ങളൊക്കെ അതിൽ അവർ നടത്താറുണ്ട് അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു നാടാണ് നമ്മുടെ കുട്ടനാട് എന്നു പറയുന്ന നാട് കുട്ടനാടൻ മേഖലകളിൽ മെയിനായിട്ട് പിന്നെ വരുന്നത് മത്സ്യക്കൃഷി മത്സ്യബന്ധനം ആണ് ഒരുപാട് പുഴകളും തോടുകളും ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് മത്സ്യബന്ധനത്തിന് അത് ഒരുപാട് നല്ല നല്ല ഒരു സ്ഥലമായിട്ടെല്ലാവരും തിരഞ്ഞെടുക്കുന്നു മത്സ്യക്കൃഷി നമ്മൾ നടത്താറുണ്ട് അതുപോലെ തന്നെ ഫിഷിങ്ങ് ഒരു പ്രധാനപ്പെട്ട ഒരു വിനോദമായിട്ട് ഇവിടെ വരുന്ന എല്ലാവരും കാണാറുണ്ട് മീൻ പിടിക്കാനും അതൊക്കെ എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഒരു മേഖലയാണ് അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് ഒരുപാടതിന് അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് നമ്മൾ തൊഴിൽ സാധ്യതയെന്ന് പറയുന്നത് കുട്ടനാടിനെ സംബന്ധിച്ചെടുത്തോളം നമ്മൾ കാർഷിക മേഖലയാണ് കൂടുതലായിട്ട് അത് ചെയ്യുന്നത് അപ്പം ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞെന്നാൽ അവർ കൃഷിയും വിട്ട് എല്ലാവരും പുറത്തേയ്ക്ക് പോവാനാഗ്രഹിക്കുന്ന കുട്ടികളാണ് അപ്പോൾ കൃഷി മേഖലകളൊക്കെ ഇപ്പോൾ പലപ്പോഴും പല സ്ഥലത്തും കൃഷി ചെയ്യാൻ ആളില്ലാതെയും ഒക്കെ വെറുതെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു തൊഴിൽ സാധ്യതയായിട്ട് കണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ കൃഷി നമുക്ക് വർഷത്തിൽ രണ്ടു പ്രാവിശ്യം കൃഷി ചെയ്യുന്ന കണ്ടങ്ങളാണ് കൂടുതലും ഉള്ളത് അപ്പം കൃഷി ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ ആ നെല്ല് നമുക്ക് കയറ്റുമതി ചെയ്യുക ഒക്കെ ചെയ്യാൻ സാധിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രദർശനം നടത്താൻ കയറിൻ്റെ ഉല്പന്നങ്ങൾ നമുക്ക് ആലപ്പുഴയിൽ പ്രദർശനം നടത്താറുണ്ട് കയറിൻ്റെ മ്യൂസിയമുണ്ട് കയർ ഉല്പന്നങ്ങൾ അവിടെ കയർ എങ്ങനെയാണ് കയറുണ്ടാക്കുന്നത് തൊണ്ടും കൊണ്ട് കൂടി കൊണ്ടുപോയി തൊണ്ടിൽ നിന്ന് കയർ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കത് കാണാൻ സാധിക്കും മ്യൂസിയത്തിൽ കയറിൻ്റെ ഉൽപ്പന്നങ്ങളുടെ എക്സിബിഷൻ നടത്താറുണ്ട് എക്സിബിഷനിൽ നമുക്ക് ചെന്നു കഴിഞ്ഞാൽ കയറിൻ്റെ പല ഉല്പന്നങ്ങൾ നമുക്കവിടെ കാണാറുണ്ട് അപ്പോൾ കയറിൻ്റെ പല പരവതാനികളും തടുക്കുകളും അതൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ അവർ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് അപ്പം കുട്ടനാടിനെ സംബന്ധിച്ചുള്ള കൃഷിയും പിന്നെ മീൻ പിടിത്തവും ഹൗസ് ബോട്ടും പിന്നെ കയറിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മുടെ കുട്ടനാടെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് നമ്മുടെ കുട്ടനാട്